കലാവ്യവസായത്തേയും കലാകാരെയും സാങ്കേതിക വിധ്യ ഏതുവിധത്തിലാണ് സഹായിച്ചിട്ടുള്ളതെന്നാണ് ഏത് വിദ്യേലാണ് സഹായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ മാധ്യമം കൂടുതൽ പ്രദർശനം നൽകീട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയും പിന്നെ ഓൺലൈൻ പഠനത്തിലൂടെയും കൂടുതൽ നമുക്ക് സാധനം തുൽത്തീരിക്കുന്നത് നമുക്കീ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊറോണാന്ന് പറഞ്ഞ മാരകമായ വയറസ് കൂടിപ്പറ്റിയപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലിരിക്കുന്ന ജോലിക്കാർക്കും എല്ലാവർക്കും കൂടുതലായിട്ട് സഹായം വന്നിരിക്കുന്നത് ഓൺലൈൻലൂടെയാണ് ഓൺലൈൻലൂടെ ജോലി ചെയ്യുക ഓൺലൈൻലൂടെ പഠിത്തം നടത്തുക അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കീ ഓൺലൈൻ പഠനത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് വീട്ടിലിരുന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും അറിയുവാനും ഉള്ള സഹായം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കൂടുതൽ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന പ്രായം ചെന്ന ആൾക്കാർക്കാണ് കൂടുതലും നമ്മുടെ മാധ്യമങ്ങൾക്കൊണ്ട് ഉപകാരമായിരിക്കുന്നത് കൊറോണ ടൈമിലാണേലും കൂടുതൽ വെളിയിലിറങ്ങാനാർക്കും സാധിക്കാൻ പറ്റാത്ത കാലം സമയത്ത് നമ്മുടെ ലോകത്ത് നാട്ടിലൊക്ക നടക്കുന്ന കാര്യങ്ങൾ അറിയുവാൻ കൂടുതലും നമ്മളുപയോഗിച്ചതും സാ മാധ്യമങ്ങളാണ് മാധ്യമങ്ങളിലെ കാര്യങ്ങൾ മാധ്യമം മാധ്യമം മാധ്യമങ്ങൾളൂടെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ എന്നാൽ ആ ആൾക്കാർ നമ്മുടെ ഈ സ സമൂഹത്ത് നടക്കുന്ന കാര്യങ്ങളെന്തൊക്കെ ആണെന്നും എങ്ങനെയൊക്കെ ആയിരുന്നുവെന്നും കൂടുതലും അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് പിന്നെ കുട്ടികൾ കൂടുതലും ഓൺലൈൻ പഠനമാണ് നടന്നിരുന്നത് അത് കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമുക്ക് സാദാ രീതിയിൽ പറഞ്ഞ് കൊടുത്താലുവൊന്നും മനസ്സിലാവില്ല അവർക്കോൾറെഡി ഫോണൊ ലാപ്പും ഫോണു ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്കിപ്പോൾ ഒരു ഒരു മ മനസ്സിലാക്കാൻ കഴിയു ഇപ്പോൾ സ്കൂളിപ്പോകുന്നുണ്ടേലും കൂടുതൽ അവർ ഓൺലൈൻ വഴിയാണ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു കാര്യം ഒരു പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നു അവർക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കാൻ മേലാത്ത കാര്യങ്ങൾ കൂടുതലും അവർ ഓൺലൈനിലൂടെ യൂറ്റൂബിലും ഇൻസ്റ്റ അങ്ങനെയോരൊ കാര്യങ്ങൾ യൂറ്റൂബിലെല്ലാം നോക്കി സെർച്ച് ചെയ്താണവർ ഗൂഗിൾലൊക്കെ നോക്കി ഓരോന്ന് സെർച്ച് ചെയ്താണ് അവരോരൊ കാര്യങ്ങൾ പ്രൊജക്റ്റും സെമിനാറും കാര്യങ്ങളുവൊക്കെ അവർ തെരഞ്ഞെടുത്ത് എഴുതുകയും എന്നുവെച്ചാൽ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ അവർ ഓൺലൈലൂടെയാണ് അവർ കൂടുതലും മുന്നോട്ടിപ്പോൾ പോയി ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഏറ്റോം കൂടുതൽ പ്രാധാന്യം നൽകുന്നതും ഓൺലൈൻലൂടുള്ള പഠനങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഒരു വെളിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പെട്ടന്ന് അത്യാവശ്യമായിട്ട് നാട്ടിൽ വന്നു കമ്പനി വിട്ട് നാട്ടിൽ വരണം അപ്പം നാട്ടിൽ വന്ന് കഴിഞ്ഞാലും അവർക്ക് ജോലി ചെയ്ത് അവരുടെ ജോലി പോകാതെ കാത്ത് സൂക്ഷിക്കണമെങ്കിൽ ഓൺലൈൻ വഴി ജോബ് ചെയ്ത് ജോലി ചെയ്ത് അവരുടെ കമ്പനി നിലനിർത്തുക അവരുടെ ജോലി നിലനിർത്തുക എന്നുള്ളതാണ് കൂടുതലിപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്നുവെച്ചാൽ ഹൗസ് വൈഫായിട്ടുള്ള സ്ത്രീകൾക്കാണേലും ഇപ്പോൾ ഓൺലൈൻ ജോബ്സ്സ് കൂടുതലും വേക്കൻസികളാണ് ഉള്ളത് വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കി എന്നാൽ വീട്ടുജോലിയും കഴിഞ്ഞിട്ട് ഫ്രീ ആയി ഇരിക്കുന്ന സമയത്ത് അവർക്ക് വരുമാനം സമ്പാദിക്കാൻ ഇപ്പം കൂടുതലും നമ്മളോൺലൈൻ വഴിയുള്ള ജോലികൾ കൂടുതലിപ്പം ഉണ്ടായിട്ടുണ്ട് പിന്നെ വരുന്നത് സാമൂഹ്യ മാധ്യമം സാമൂഹം സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ വാ വാർത്തകൾ ഇപ്പം കൂടുതലും പത്രങ്ങളൊന്നും ആരും വരുത്തുന്നില്ല പത്രങ്ങളുടെ വരവിപ്പം കുറഞ്ഞോണ്ടിരിയ്ക്കയാണ് എന്നുവെച്ചാൽ കൂടുതൽ ഇപ്പം എല്ലാവരും റ്റീ വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് ചാനലൊണ്ട് ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസൊണ്ട് എവിടെ നടക്കുന്ന ഏത് സമയോം തത്സമയവാണിപ്പം എല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴ്ത്തേക്കും കൂടുതലും നമ്മൾ ഫോൺ ഫോണും റ്റീ വിയെക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നതും അതുകാരണം ഇപ്പം പത്രത്തിന്റെ ആ ഒരു എന്നാൽ വരുമാനം ആ ഒരു വരവും ഇപ്പം കുറവാണ് കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഫോൺ തുറന്നാൽ നമുക്ക് റീൽസ്സ് യൂറ്റൂബ് റീൽസ്സ് എന്നാൽ ഫേസ് ബുക്ക് എന്താ പറയുക പിന്നെ വാട്സപ്പെ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഫോൺലൂടെ ഇപ്പം നമ്മുടെ മുന്നോട്ട് ഇപ്പം നമ്മൾ വെറുതേ ഇരിക്കുമ്പം നമ്മൾ ഫോണിൽ നിന്ന് ഫേസ് ബുക്ക് ഓപ്പൺ ചെയ്തു ആ ഫേസ് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതലതിൽ എവിടെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ നടക്കുന്ന അവരുടെ വീട്ടുകാരറിയുന്നതിന് മുൻപേ നാട്ടുകാരും വീട്ടുകാരുവെല്ലാം ഒരുപോലാണിപ്പം അറിഞ്ഞോണ്ടിരിക്കുന്നത് അതുപോലാണ് നമ്മുടെയിപ്പം ഫോൺന്റെ ഉപയോഗം കണ്ടു കൊണ്ട് കണ്ടു വരുന്നത് പക്ഷേ കൂടുതലും നമ്മുടെ എന്നാൽ ഫോണിക്കൂടെ വെ വിരങ്ങളെല്ലാവറിയാം ഇപ്പോൾ ഒരു വീട്ടിലിന്ന് ഇപ്പം സ്വന്തം മക്കളെ നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ടുള്ളൊരു ഉപയോഗവാണ് വാട്സപ്പ് എന്നാൽ ഐ എം ഓ ബൂട്ടിയെം അങ്ങനെ കുറെ എന്ന ആപ്പ്കളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്നുവെച്ച് നമുക്ക് വീട്ടിലിരുന്ന് ജോലി സ്ഥലത്ത് ജോലിചെയ്യുന്ന മക്കളെക്കണ്ടും എന്നാ മക്കളെക്കണ്ട് നമുക്ക് സംസാരിച്ച് ഇപ്പം വീട്ടിലിരിക്കുന്ന പ്രായമുള്ള അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും കൂടുതലും അവരുടെ മക്കളെക്കണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് ഒരവസരം നമ്മുടെ ഇപ്പം എന്താ മീ എന്ന ഓൺലൈൻ വഴി നടക്കുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ ഓൺലൈനിലിപ്പം അവർക്ക് എന്ന അവരുടെ എന്നാ മക്കളെക്കണ്ടും അപ്പനെ അമ്മേനേവെല്ലാവരെയും കണ്ട് സംസാരിക്കാനും അവരോട് അവരുടെ കാര്യങ്ങൾ എന്ന പറയാനും എടുക്കാനും പറയാനും കാണാനുമൊക്കെ നേരിട്ട് കാണുന്നത് പോലെ തന്നെ സംസാരിക്കാൻ സഹായിക്കുന്ന ഓരോ ഒരു എന്താ ഒരു മീ ഒരു ഓൺലൈൻ സംവിധാനമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഉള്ളത്